പത്രത്തിലും റേഡിയോയിലും വീട്ടമ്മമാർക്കായി പ്രത്യേകം വിഭാഗം വേണമെന്ന് ചിലപ്പോഴൊക്കെ ആഗ്രഹിക്കാറുണ്ട് കാരണം വീട്ടമ്മമാരുടെ പ്രശ്നങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ പറയുക വേണ്ടി പ്രത്യേക വിഭാഗം വെക്കുമ്പോഴും മറ്റ് സ്ത്രീകൾക്ക് അതു പലപ്പോഴും ഉപകാരപ്പെട്ടേക്കാം സ്ത്രീകളുടെ പ്രഷ് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ അതു വളരെയധികം സഹായകരമാകും എന്ന് എനിക്ക് തോന്നാറുണ്ട് സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുക മാത്രമായിട്ട് ഒരുപാട് പരിപാടികൾ ഒന്നും തന്നെ ഇല്ല എന്നാൽ മാസികകളിലും ചെറിയ ചെറിയ കോളങ്ങളിലുമെല്ലാം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാറ് പെടാറുണ്ട് പക്ഷേ എന്നാലും അതു സമൂഹത്തിന് ഒരുപാട് മാറ്റങ്ങൾ ഒന്നും സൃഷ്ടിക്കാറില്ല അതവിടെ ചർച്ച ചെയ്യും അതവിടെ ഉപേക്ഷിക്കും അങ്ങനെ ഒരു പരിപാടിയാണ് എപ്പോഴും കണ്ടുവരുന്നത് കുറച്ചുകൂടി ജനങ്ങൾക്കിടയിലെ സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് അവർക്ക് കൂടുതൽ കൺസേൺ വേണം അവർക്ക് കൂടുതൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള ഒപ്പോർച്ചുണിറ്റികൾ കൊടുക്കണം എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് സമൂഹത്തിൽ അവരെ ഒരുപാട് തരം താഴ്ത്തുന്ന പരിപാടികൾ ചെയ്യാറുണ്ടെന്ന് എപ്പോഴും തോന്നാറുണ്ട് അതുകൊണ്ടുതന്നെ അവർക്കു വേണ്ടിയിട്ട് പ്രത്യേക വിഭാഗം എപ്പോഴും വേണം അവർക്ക് വേണ്ടിയുള്ള ഈ വിഭാഗത്തിൽ എങ്കിലും ആൾക്കാരവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അതു വളരെ നല്ലൊരു കാര്യമല്ലേ അവരുടേ മാസികകളി തന്നെ പല പല വനിതാ മാസികകളുണ്ടെങ്കിലും അതിൽ സ്ത്രീകളുടെ പ്രശ്ന വിഷയങ്ങളെ ചർച്ച ചെയ്യുന്നതിനേക്കാളും ഫാഷൻ കാര്യങ്ങളും മറ്റ് കാര്യങ്ങളും ചർച്ച ചെയ്യാനാണ് അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റെന്നെനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് അതുകൊണ്ട് സ്ത്രീകളുടെ വിഷയങ്ങൾ അവരുടെ ബുദ്ധിമുട്ടുകൾ അവർ സനൂ സമൂഹത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകൾ ഇതിനുവേണ്ടി മതം പ്രത്യേകം മാസികകളോ വാരികകളോ കോളങ്ങളോ ഉൾപ്പെടുത്തിയാൽ അത് വളരെ അവർക്കും കൂടി പ്രയോജനപ്പെടും അത് മറ്റുള്ളവർക്കും പ്രയോജനപ്പെടും എന്നു ഫീൽ ചെയ്യാറുണ്ട്